എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടപ്പെട്ട ഒരു കായിക കലാ കായികമാണ് ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റാണ് അപ്പോൾ ക്രിക്കറ്റ് കളിക്കാന് ഇഷ്ടം എന്ന് പറയുമ്പോള് ഇവിടെ ഞങ്ങളുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ എല്ലാവരും കൂടെ ചേര്ന്ന് ക്രിക്കറ്റ് കളിക്കാറുണ്ട് അപ്പോൾ ഏകദേശം ഒരുപാട് ആളുകള് ആവശ്യമുള്ളൊരു കളിയാണ് ക്രിക്കറ്റ് അപ്പോൾ അതിന്റേതായ തമാശകളും മറ്റു കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഉണ്ടാവണം അതുപോലെത്തന്നെ ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റും മറ്റും ടിവിയില് കണ്ടും നമുക്ക് ഒരുപാട് ആരാധന തോന്നിയിട്ടുള്ള ആള്ക്കാരും കളിക്കുന്നതുകൊണ്ട് നമ്മള് ആ ഒരു മേഖലയെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ സച്ചിന് വിരാട് കൊഹ്ലി അതുപോലെത്തന്നെ രോഹിത് ശര്മ്മ ധോണി അങ്ങനെ ഒരുപാട് ആള്ക്കാര് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആരാധകരുള്ള ഇവരെയൊക്കെ കാണുമ്പോള് നമുക്കും തീര്ച്ചയായും ക്രിക്കറ്റ് കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവാറുണ്ട് അപ്പോൾ അവധിക്കാല കാലസ ആ അവധിക്കാലത്തൊക്കെ ഇവിടെ എല്ലാവരും കൂടി ചേര്ന്ന് കളിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ ആരു ജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നുള്ളതൊന്നും അല്ല അ തീര്ച്ചും തീര്ച്ച തീര്ച്ചും ഭയങ്കര രസകരമായിട്ടും ഒക്കെയാണ് കളിക്കാറുള്ളത്